പാലക്കാട് ജില്ലയിൽ ആചരിക്കുന്ന പ്രധാന ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം കൽപ്പാത്തി ഗ്രാമത്തിലെ ഒരു അമ്പലത്തിൽ നടക്കുന്ന ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം ജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു വലിയ ഒരു രഥത്തിനെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എല്ലാം എടുത്ത് ഈ വ്രതത്തിനെ വലിച്ച് അമ്പലത്തിൽ എത്തിക്കുക എന്നതാണ് ആചാരം അമ്പലത്തിൽ എത്തിക്കുന്നതോടുകൂടി ഉത്സവം അവസാനിക്കുക ഉണ്ടായി പാലക്കാട് നടക്കുന്ന വലിയൊരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന കൽപ്പാ കൽപ്പാത്തി നാളുകളായിട്ട് നടന്നു വരുന്ന ഉത്സവം ഒരു സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്

അതുകൂടാതെ പല സ്ഥലങ്ങളിൽ ആയിട്ട് നടക്കുന്ന അമ്പലത്തിലെ ഉത്സവങ്ങൾ അതെല്ലാം തന്നെ ഒരു നാടിൻ്റെ ഒരു ചൈതന്യം വിളിച്ചോതുന്ന ഓരോ കാര്യങ്ങളാണ്